ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ സാംസ്കാരികമായ ഒരു ഐഡൻ്റിറ്റി ഉണ്ടാവും അതായത് ഒരു ഒരു ഉദാഹരണത്തിന് ഒരു തമിഴ്നാട് തിഴനാടിൻ്റെ കൾച്ചർ എടുത്ത് നോക്കുമ്പോൾ ഈ തമഴ്നാടിനെ തമിഴ്നാടിൻ്റെ ഐഡൻ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പഴയ ടൈപ്പ് പഴഞ്ചൻ ഒരു കൾച്ചറായിട്ട് നമുക്ക് കാണാൻ സധിക്കും നേരെ മറിച്ചു കേരളത്തിൻ്റേത് വരുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക

ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലുള്ള പണ്ട് മുതലുള്ള പുറം നാടുകളുമായുള്ള ബന്ധത്തെക്കുറിച്ചു കാരണം എല്ലാവർക്കും അവർ അറിയാവുന്നത് പോലെ കുരുമുളക് പോലെയുള്ള ധാരാളം കുരുമുളക് പോലെ കുരുമുളക് അതുപോലെ സുഗന്ധവ്യഞ്ജനമൊക്കെ പണ്ട് മുതലേ കേരളത്തിൽ ഒരു വലിയ ഒരു ബിസിനസ്സ് കണക്കിലാക്കി എടുത്തു ബ്രിട്ടീഷുകാർ പോലെയും അറബികൾ പോലെയുള്ള എത്രയോ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഒരു സിൽക്ക് റോഡായി കേരളത്തിലൂടെ ഒന്ന് കച്ചവടം നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സമയത്ത് നമുക്ക് എത്ര ഇത്ര ഈ കേരളത്തിൽ അങ്ങനെ പുറത്തുള്ള രാജ്യങ്ങളുമായി ബന്ധമുണ്ടായത് കൊണ്ടാകാം കേരളത്തിൽ സാംസ്കാരികമായി ഒന്നുപാടേ മുന്നോട്ട് വന്നത് പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം എന്നുള്ളത് മലയാള ഭാഷയയുടെ ഒരു പങ്ക് എന്തണ് എന്നാണല്ലോ പക്ഷെ മലയാള ഭാഷയ്ക്കെന്ന് വച്ചാൽ കേരളത്തിൽ ഒരു അതിൻ്റേതായ ഒരു സ്റ്റൻഡ് ഉണ്ടെന്നു പറയാൻ കാരണം സ്വാഭാവികമായ മലയാള ഭാഷ തമിഴിൽ നിന്നും രൂപപ്പെട്ടു വന്നതാണെന്നെങ്കിൽ കൂടിയും മലയാള ഭാഷയുടെ കേരളത്തിൽ മലയാള ഭാഷക്കുള്ള പങ്ക് എന്താണെന്ന് വച്ചാൽ പല എഴുത്തുകാരന്മാരിലൂടെയും ഒരു മലയാള ഭാഷയുടെ എഴുത്ത് മലയാള ഭാഷ കേരളത്തിൻ്റെ ഐഡന്റ്റിറ്റി എടുത്തു കാണിക്കുന്നുണ്ട് കാരണം എഴുത്തച്ഛനെ പോലെയുള്ളവർ അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ ചെറുശ്ശേരി അങ്ങനെയുള്ള ധാരാളം ഐതിഹ്യങ്ങളിലുടെ കഥകൾ എഴുതുന്ന പലരെയും നമുക്ക് അറിയാവുന്നതാണ് ഇവരെ എല്ലാ രീതിയിലും മലയാള ഭാഷയെ എത്രമേൽ സ്വാധീനിച്ചെന്ന് നമുക്ക് പറയാൻ പറയാൻ കഴിയില്ല അത്ര അത്രമേൽ ഇവർക്ക് ഈ ഒരു കാര്യങ്ങളിൽ പങ്കുണ്ടന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഈ മലയാളത്തിലെ നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾക്കും പിന്നിലെ ഇവരുടെ ഓരോ കൈ അക്ഷരങ്ങൾ ഉണ്ട് കാരണം ഒരു പ്രത്യേകിച്ചു ഒരു തമിഴ്നാടിനെ പറ്റി തമിഴ് സംസ്കാരം എന്നുള്ളത് അവരുടെ അവരുടെ ഭാഷയ്ക്ക് അവർ അത്രമേൽ പ്രാധാന്യം നൽകുന്നു ഓരോ ഷോപ്പുകളൂം തമിഴിൻ്റെ പേര് തമിഴിൽ പേര് എഴുതി വയ്ക്കുന്നത് പോലെ നമ്മുടെ മലയാള ഭാഷയിലും അത്ര അങ്ങനെ സംസ്കാരം സംസ്കാരികമായി വളരെ അധികം മുന്നോട്ട് നിൽക്കുന്ന കാരണം മലയാള ഭാഷ തന്നെയാണ് കാരണം ഈ ഒരു മലയാള ഭാഷ എന്നുള്ള അതിൻ്റെ ഒരു ഐഡൻ്റിറ്റിയും ഉണ്ടായത് കൊണ്ട് ഒരു കവിത കവിതകളിലൂടെയും മറ്റു പല ലേഖനങ്ങളായാലും നോവലുകൾ അതിലൂടെയും മലയാള ഭാഷയ്ക്ക് അതിൻ്റേതായ ഒരു ഐഡൻ്റിറ്റി നിലനിർത്തി കൊടുക്കും മലയാള ഭാഷയുടെ എഴുത്തുക്കാരിലൂടെയാണ് നമുക്ക് അതിൻ്റെ സംസ്കാരം നിലനിർത്താൻ സാധിക്കുന്നത് എത്രത്തോളം എന്നു വച്ചാൽ ഒരു ഈ ഈ അടുത്ത അറിയാവുന്ന ഒരു ആടുജീവിതം പോലെയുള്ള ഒരു ഒരു സിനിമ പുറത്തിറങ്ങി അതിൻ്റെ എഴുത്തുകാരനാണ് ബെന്യാമിൻ എന്നുള്ളത് ഈ ബെന്യാമിനിലൂടെ മലയാള ഭാഷയുടെ ഒരു ഒരു അതായത് സാംസ്കാരികമായ വൈവിധ്യം എല്ലാ രാജ്യങ്ങളിലും നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ നമ്മളുടെ ഉറൂബിൻ ഉറൂബിൻ്റെ പണ്ടത്തെ പുസ്തകമായ ചെമ്മീൻ എന്നുള്ളൊരു പുസ്തകമുണ്ട് തകഴിയുടെ ഈ തകഴിയുടെ ചെമ്മിൻ മലയാള ആ മലയാള ഭാഷയുടെ ഒരു മലബാർ ഏരിയ ഭാഗത്തുള്ള മലയാള ഭാഷ പച്ചയായ സംസ്കാരം തകഴിയുടെ ചെമ്മിൻ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്